രണ്ട് ലക്ഷത്തി മുപ്പത്തി നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് മൂന്ന് ലക്ഷത്തി നാല്പത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഒരു ലക്ഷത്തി ഇരുപത്തി മുന്നായിരത്തി നാനൂറ്റി അൻപത്തി ആറ് ഏഴ് ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് നാല് ലക്ഷത്തി അൻപത്തി ആറായിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ട്